ഞാൻ ചെയ്തതിൽ ഏറ്റവും വെല്ലുവിൾ വെല്ല് വെല്ലുവിളി ഏറിയതും ഏറ്റവും പ്രതിഫലമായി കിട്ടി പ്രതിഫലദായകമായിട്ടു തോന്നിയത് ഒരു കല്ല്യാണ പെണ്ണിൻ്റെ ഫ്രോക്ക് തയ്യലാണ് അത് കല്ല്യാണം ഫ്രോക്ക് എന്നു പറയുമ്പോഴത്തേക്ക് അതു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഒരു കാര്യമായിരുന്നു കാര്യം അത് ഒരിക്കലും ഒരു കോ പിഴവ് പറ്റാനോ ഒരു കുറവു പറയാനോ ഇടയാക്കരുതല്ലോ നന്നായിരിക്കണ്ടേ അതു കൊണ്ട് വളരെയധികം ചെ ദിവസങ്ങൾ ദിവസങ്ങളെടുത്തു ചിലവേറിയതും ഒരു ഒരുപാട് ദിവസങ്ങളെടുത്തു ഞാൻ ചെയ്യുക ഞാൻ ചെയ്ത ഒരു വർക്കായിരുന്നു അത് വളരെ നല്ല ഒരു വർക്കായിരുന്നു അത് അന്ന് ആ കുട്ടി ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു അതെല്ലാവരും അതു പറഞ്ഞു അപ്പോൾ എനിക്കു നല്ലൊരു അനുഭവമായിരുന്നു അതു നന്നായിട്ടുണ്ട് എന്നു പറഞ്ഞു ഞാനാ കല്ല്യാണത്തിനു പങ്കെടുക്കാൻ പോയപ്പോൾ ആ കുട്ടിയിട്ട് ഇട്ട് കണ്ടപ്പോൾ എനിക്കു വളരെ വളരെ സന്തോഷം തോന്നി എന്നിൽ തന്നെ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത് വളരെ സമയം ചിലവഴിക്കേണ്ടി വന്നെങ്കിലും അതു കണ്ടപ്പോൾ എനിക്കു വളരെ അതു ചിലവഴിച്ച സമയത്തെക്കുറിച്ചൊന്നും എനിക്ക് ഓർമ്മയുണ്ടായില്ല അതു വാ പിന്നെ വളരെയധികം അഭിമാനത്തോടെ ഞാൻ നോക്കി നിന്നു കണ്ട ഒരു ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ തയ്ച്ച ആ ഫ്രോക്ക്